ആ ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ട്രാവൽ മറ്റേ പാക്കേജിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു എനിക്ക് തിരുവനന്തപുരത്താണ് കുറച്ച് ഞാൻ അന്വേഷിക്കുന്നത് ഒരുപാട് നല്ല ബീച്ച് സീനറിയർ ഒക്കെ ഉള്ള സ്ഥലത്ത് പോകാനാണ് താൽപ്പര്യം

കൂടുതൽ ആ ബീച്ച് പിന്നേ മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെയില്ലെ അങ്ങനത്തെ നല്ല പ്ലേസിലാണ് ആ ആ ഓക്കെ അപ്പം ഫുഡ്ഡിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് ഓക്കെ ഞങ്ങൾ അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ ആയിട്ടുള്ള പാക്കേജ് എത്ര എമൗണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ചെയ്ത് തരാം ആ ഓക്കെ ഞങ്ങള് നാല് പേരെ ഉള്ളു ഫാമിലി ആയിട്ടാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ